ഇന്നൊരുപാട് കായിക വിനോദങ്ങൾ നമ്മുക്കിടയിൽ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിലും പിന്നെ ജോലിക്ക് പോയി തിരിച്ച് വരുന്നവരാണെങ്കിലും ഒരുപോലെ കായിക വിനോദത്തിൽ ഏർപ്പെടുന്നുണ്ട് ഈ ഇത്തരം ജീവിത ശൈലിയിൽ വരുന്ന കായിക വിനോദങ്ങൾ അല്ലെങ്കിൽ അവർ എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുന്ന വിനോദങ്ങളിലൂടെയൊക്കെ ആരോഗ്യകരമായിട്ടും അതുപോലെ മാനസികപരമായിട്ടും ഒരുപാട് മെച്ചപ്പെട്ട മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഒരു ആത്മവിശ്വാസം കൈ വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾക്ക് കായിക വിനോദത്തിൽ ഏർപ്പെടുന്നോരായിക്കോട്ടെ ഇപ്പോൾ വീട്ടിൽ തന്നെയിരിക്കുന്നവർക്ക് ഇപ്പോൾ ഷട്ടിൽ അതുപോലെ ക്രിക്കറ്റ് പിന്നെ അതുപോലെ ചെസ്സ് പാമ്പും കോണിയും ലുഡോ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് വിനോദങ്ങൾ ഉണ്ട് വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റിയ ഇപ്പോൾ ഷട്ടിൽ പോലെയുള്ള കളികളിലൊക്കെ സ്ത്രീകൾ ഒരുപാട് ഇന്ന് ഏർപ്പെടുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ അടുത്തടുത്ത അല്ലെങ്കിൽ ഒരു ചെറിയ വീടുകളിലും അതുപോലെ അടുത്തടുത്ത വീടുകളിലുള്ളവർക്കും ഒരുപോലെ എല്ലാ വീട്ടിൽ നിന്നും ഒർ ഒരുമിച്ച് ആൾക്കാർ ഒത്തൊരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി ഷട്ടിൽ കളിക്കുന്നു അത് അവരുടെ ആരോഗ്യപരമായിട്ട് ഒരുപാട് മാറ്റം ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് വെറുതെയിരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഇളകുകയും അതിലൂടെ നമുക്ക് മാനസികമായ ഏകാഗ്രത ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ മാനസികമായി വീക്കായിട്ടുള്ളവർക്കും എല്ലാവരുടെയും കൂടെ ഒത്തൊരുമിച്ച് കളിക്കുമ്പോൾ അവരുടേതായ രീതിയിൽ അവർക്കും ഒരു സന്തോഷത്തെയും അതുപോലെ അവരുടെ മനസ്സിനെ ഒരു ഒന്ന് തണിപ്പിക്കാനൊക്കെ കഴിയും അതുപോലെ തന്നെ പ്രായമായവർക്കും കായിക രംഗത്തെ മാനസിക നേട്ടങ്ങൾ ഒരുപാട് ലഭിക്കുന്നുണ്ട് അതുപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും നമ്മുടെ ഏകാക്രത മെച്ചപ്പെടുത്താനും ഒക്കെ ഈ കായിക വിനോദങ്ങളിലൂടെ നമുക്ക് സഹായിക്കുന്നുണ്ട്